ഇരുപത്തിയഞ്ച് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് പന്ത്രണ്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് നാല് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ട് ഇരുപത്തി അഞ്ച് രണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് ഇരുപത്തിനാല് എട്ട് രണ്ടായിരത്തി പന്ത്രണ്ട്